ഹലോ അതേലൊ അതെയതെ അതെ വെജിറ്റബിൾസ് ഹോട്ടൽ ആണ് ആ ഇല്ല ഇല്ല ഇല്ല ആ അപ്പം ഉണ്ട് പുട്ട് ഉണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്

നിങ്ങൾക്കെന്താണ് വേണ്ടത് ഹലോ ഹലോ മ്മ് ആ പറഞ്ഞോ ആഹ് ആ ഞങ്ങൾ അങ്ങനെ ഫോ ആ ഞങ്ങൾ അങ്ങനെ പുറത്ത് പുറത്തങ്ങനെ ഫോട്ടോ ഫോട്ടോ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും ഇല്ല

ആ ഞങ്ങളങ്ങനെ ചെയ്യാറില്ല

ആ ആഹ് ഇതിൽ എനിക്ക് എന്താണ് ലാഭം

മ്മ് മ്മ് മ്മ് നിങ്ങൾ നിങ്ങൾ എന്ത് ഫുഡിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് ഫോട്ടോ വേണം ങേ ഏതാണ് ആ ആ ആ ആ ആ എന്നാൽ ശരി ആയിക്കോട്ടെ